ജിബിൻ ബിനു നോയൽ പ്രിൻസ് സച്ചിൻ ഡെൻഡുൽക്കർ വിരാട് കോലി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഹാറൂണ് ബിന്നി അരുൺ തോമസ് ഇമാനുവൽ മനോജ് കെവിന് സന്തോഷ് ഡരേഷ ഷാജി അഞ്ജു തോമസ്